ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഴയ രീതിയിലേക്ക് നമ്മൾ ജോലി കൂടുതലായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല കാരണം ആ ഒരു രീതിയിൽ ഇന്ന് സമൂഹത്തിൽ ആരും തന്നെ ജോലി ചെയ്യുന്നില്ല പണ്ടത്തെ ആളുകളൊക്കെ കൂടുതലായിട്ട് അദ്ധ്വാനിച്ചിരുന്നു പറമ്പിലും മറ്റ് കാര്യങ്ങളിലൊക്കെ അദ്ധ്വാനിച്ചിരുന്നു ഇപ്പം ആ ഒരു രീതിയിലേക്ക് ഇനി ഓഫീസിൽ ജോലിയാണെങ്കിലും നമുക്ക് മെയ് അനങ്ങിയുള്ള അദ്ധ്വാനം വളരെ കുറവാണ് അപ്പം അങ്ങനെയൊക്കെയുള്ളപ്പം തീർച്ചയായിട്ടും ഓട്ടത്തിന് വളരെ അധികം പ്രധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട് ഞാൻ അത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ദിവസവും ഞാൻ ഏറ്റവും കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് നമ്മൾ എല്ലാ ദിവസവും റെഗുലറായിട്ട് നമ്മൾ ചെയ്തു പോകുന്നു രാവിലെ സമയങ്ങളിലാണ് കൂടുതലായിട്ട് ഓടാൻ ശ്രമിക്കുന്നത് രാവിലെ എന്തെങ്കിലും കാരണവശാൽ നടന്നില്ലങ്കിൽ വൈകുന്നേരം അത് ഒരു മണിക്കൂറ് തീർത്ത് ഓടുക എന്നുള്ളതാണ് ഓടുക അല്ലെങ്കിൽ സ്പീഡിൽ നടക്കുക ആ ഒരു രീതിയിലേക്കാണ് ഞാൻ മുൻ പോയിക്കൊണ്ടിരിക്കുന്നത് അത് തീരെ പതുക്കെ ആയിരിക്കുകയില്ല കുറച്ച് സ്പീഡിൽ വരത്തക്ക രീതിയിലേക്ക് കാരണം ആരോഗ്യപരമായിട്ട് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മരുന്നുകളൊക്കെ വളരെ കുറച്ച് ഒരു പ്രായമായി വരുമ്പോഴത്തേക്ക് അല്ലങ്കിൽ നമ്മൾ മരുന്നുകൾ പലതായും കൂടുതലായിട്ടുപയോഗിക്കണ്ടി വരുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ ഡയബറ്റിക്ക് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒത്തിരി ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് പഴയ രീതിയിലലല്ല പഴയ ആളുകൾ ഡയബറ്റിക്കായിട്ടുള്ള ആളുകൾ വളരെ കുറവായിരുന്നു പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ഡയബറ്റിക്കായിട്ടുള്ള ആളുകൾ കൂടുതലാണ് അതുപോലെ തന്നെ ഡയബറ്റിക്കായിട്ടുള്ള ഡയബറ്റിസം വന്ന് കഴിയുമ്പോഴത്തേക്ക് അതുവായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അസുഖങ്ങൾ ക്രിയാറ്റിൻ കൂടി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളായി പ്രഷറ് കൂടി അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ റിലേറ്റഡായിട്ടുള്ള ഒത്തിരി അസുഖങ്ങൾ മറ്റു രീതിയിലേക്ക് വരാറുണ്ട് അപ്പ അതിനെല്ലാം മരുന്ന് കഴിക്കുന്നു അങ്ങനെയുള്ളൊരു സമൂഹവായിട്ടിന്ന് മാറിയിരിക്കുകയാണെല്ലാവരും അതക്കെ ഒന്ന് നിയന്ത്രിക്കണോന്നൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓട്ടം വളരെ പ്രധാന്യമുണ്ട് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മരുന്നൂകൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കും അസുഖങ്ങൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റിക്കൊണ്ട് നല്ല ഒരു നല്ല ഒരു ഹെൽത്തി സമൂഹമായിട്ട് നമ്മുടെ സമൂഹത്തെ തീർച്ചയായിട്ടും നമുക്ക് മാറ്റാൻ സാധിക്കും തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും നമ്മൾ ഈ ഈ കാര്യങ്ങൾ പകർന്നു കൊടുക്കണം കാരണം ഓട്ടത്തിൻ്റേതായ പ്രധാന്യം നമ്മുടെ യുവ തലമുറയെ കൂടുതലായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ യുവ തലമുറ ഇന്ന് കൂടുതലായിട്ടും ഒരു മൊബൈൽ ഫോണുണ്ടെങ്കിൽ ആ ഫോണും വച്ച് കൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും അവര് ഇൻസ്റ്റഗ്രാമായിട്ടും യു ട്യൂബായിട്ടും ഫേസ്ബുക്കായിട്ടും വാട്ട്സ്പ്പായിട്ടുമൊക്കെ അവർക്ക് എത്ര സമയം വേണമെങ്കിലും വിനിയോഗിക്കാനായിട്ട് സാധിക്കും ആഹാരം പോലും കഴിക്കാതെ സമയത്തിന് ആഹാരം കഴിക്കാതെ ഇന്നത്തെ സമൂഹത്തിൽ വേറൊരു ബുദ്ധിമുട്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയത്തിന് ആഹാരം കഴിക്കുന്നില്ല വ്യായാമം ചെയ്യാതിരിക്കുന്നതോടൊപ്പം തന്നെ എന്ന കൂടുതലായിട്ടും ഈ പറഞ്ഞത് പോലെ ആഹാരവും സമയത്തിന് കഴിക്കാതെ ഏതെങ്കിലും ഒരു സമയത്ത് ആഹാരം കഴിക്കുന്ന രീതിയിലേക്കൊക്കെ മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരൊക്കെ എപ്പോ ഴും കംമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്ന് കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു അവസ്ഥ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ കഴിച്ച് കൊണ്ട് ചായ കുടിച്ച് കൊണ്ട് അല്ലേ കാപ്പി കുടിച്ച് കൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും ആഹാരം കഴിച്ചു കൊണ്ടൊക്കെ ആയാണ് അവർ മുന്നോട്ട് പോകുന്നത് അതെല്ലാം കൊണ്ടൊക്കെയാണ് സമയം അതിന് ഒരു ടൈംടേബിൾ വച്ചിട്ട് വേണം ആഹാരവും കഴിക്കാനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ അപ്പം വ്യായാമത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട് എല്ലാ ദിവസങ്ങളിലും കൃതയുമായിട്ട് ഒരു ടൈംടേബിൾ വച്ച് തന്നെ ഓട്ടം ഒരു മുഖ്യ കാര്യമായിട്ട് എടുത്ത് തീർച്ചയായിട്ടും മുന്നോട്ട് നീങ്ങണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഓട്ടത്തിൻ്റെ കാര്യത്തിനും വളരെ അധികം പ്രാധാന്യം കൊടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യകരമായൊരു ആളായിട്ട് നമുക്ക് മാറാൻ സാധിക്കത്തൊള്ളൂ അങ്ങനെ ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനും തീർച്ചയായിട്ടും സാധിക്കുകയുള്ളു